ഹലോ റോയൽ എൻഫീൽഡ് കോട്ടയത്തെ ഷോറൂം ആരായിരുന്നു അതെ കോട്ടയത്തെ ഷോറൂം ആയിരുന്നല്ലൊ ആ പാറത്തോട് എന്ന് പറയുമ്പം ഏത് ജില്ലയായിരുന്നു നമ്മുടെ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ എന്ത് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ ഏത് വർഷത്തെയാണ് നോക്കുന്നത് ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലേയും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേയും ഉണ്ട് ആ ഞാൻ പറഞ്ഞ് തരാം ഇരുപത്തിനാലിലെ ഇപ്പം നമുക്ക് ഈ മാർച്ച് മാസത്തിൽ നമുക്ക് ചെറിയ കുറച്ച് ഓഫറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് കാര്യമായ വിലയിൽ ഡിസ്കൌണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ നിങ്ങളുടെ വണ്ടിയുടെ മോഡൽ ഇരുപത്തി നാലായിരിക്കണം രജിസ്ട്രേഷൻ ഇരുപത്തിയഞ്ച് ആയിരിക്കും അതാണ് അതിനകത്ത് വലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോൾ ഒരു ആ നമുക്കൊരു ആഹ് ഞാ ഒരു മോഡൽ പറയാം നമുക്ക് ഏത് മോഡലാണ് അങ്ങനെ വല്ലതും നോക്കിയിരുന്നോ ക്ലാസ്സിക് മതി ഓക്കെ നമുക്കുള്ളത് സ്റ്റാൻഡേഡുണ്ട് ക്ലാസ്സിക്കുണ്ട് പിന്നെ ഹണ്ടർ എന്ന് പറഞ്ഞ മോഡലുണ്ട് ഹിമാലയനുണ്ട് ആ നമ്മൾ ഇങ്ങനെ റൈഡ് പോവാനുള്ള ആവശ്യമാണോ അതോ നമ്മൾ അല്ലേൽ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ത് ശരി ശരി ശരി നമുക്ക് ഒന്നര ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര ലക്ഷം രൂപ തൊട്ട് നാല് ലക്ഷം വരെയുള്ള മോഡലുകളാണ് നമുക്ക് അവൈലബിൾ ഇനി നമുക്ക് ഓൺറോഡ് പ്രൈസാണ് പറയുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ തുകയിൽ നമുക്കൊരു പതിനായിരം രൂപയാണ് നമ്മൾ ഇപ്പം ഡിസ്കൗണ്ടിട്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ആക്സസറീസ് എന്തെങ്കിലും നമുക്ക് ചെയ്ത് തരാൻ പറ്റും അത് നമുക്ക് എൽ എന്തോ നമുക്ക് എല്ലാ മോഡലിനും ഇല്ല നമുക്ക് ഈ പറഞ്ഞ ആ സ്റ്റാൻഡേർഡ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡിൽ ഉണ്ട് പിന്നെ ഒരു ഹണ്ടർ എന്ന് പറയുന്ന മോഡലുണ്ട് ഈ രണ്ട് മോഡലിലും ആണ് നമുക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇയർ ബാക്ക് വണ്ടി നമ്മുടെ കയ്യിലുള്ളത് ആ സ്റ്റാൻഡേഡിനാണ് ഏറ്റവും കൂടുതൽ മൈലേജുള്ളത് പക്ഷേ നിങ്ങൾക്ക് സെൽഫ് സ്റ്റാട്ടുണ്ടാവില്ല കിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പിന്നെ ഫ്രണ്ടും ആ മൈലേജ് നമുക്ക് കമ്പനി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് പറയുന്നത് ആ ഒരു നിങ്ങൾ ഹൈ റേഞ്ചായത് കൊണ്ടൊരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ കൂട്ടി പ്രതീഷിച്ചാൽ മതി

ആ പ്രത്യേകിച്ച് വ്യത്യാസം ഇല്ല നിങ്ങൾ ആകെ വണ്ടിയിൽ കുറച്ച് കൂടെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നേ ഉള്ളു പൊടി പിടിക്കാനും എല്ലാം സാഹചര്യമുള്ളത് കൊണ്ട് ചെയ്നും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തെടുക്കണം എന്നേ ഉള്ളു സിറ്റിയെ ഇത് അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇചിരിയും കൂടി ഗിയറ് എന്തോ പറഞ്ഞോളൂ ആ ഒരു വർഷത്തെയാണ് തേർഡ് പാർട്ടി അടുത്ത മൂന്ന് വർഷത്തേക്കാണ് നമ്മൾ ഇട്ടേക്കുന്നത് ആ അത് നമ്മൾ ഇപ്പം ഷോറൂം നമുക്ക് കമ്പനി തന്നെ ഡയറക്ട് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ആ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് ബാക്കി കോംപ്രീഹെൻസീവിൻ്റെ തുക എത്രയാണോ അത് വരുന്നുള്ളൂ ഒരു മൂവായിരം റേഞ്ചിലാണിപ്പം വരുന്നത് നിങ്ങളുടെ വണ്ടി വലിയ ഏതാണോ അതിനനുപാതി ഒര് മൂവായിരം മുതൽ അയ്യായിരം വരെയാണ് പോകുന്നത് ആ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് സാറിന് വേണമെങ്കിൽ ഡയറക്റ്റ് പുറത്ത് നിന്ന് ചെയ്യാം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് മൂന്ന് നാല് ബാങ്കുകളുമായിട്ട് ടൈ അപ്പുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് ബാങ്കാണോ താല്പര്യം അതനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് സാറിന് മൻസിലായി മൻസിലായി സാറിൻ്റെ സിബിലും എല്ലാം നോക്കിയിട്ടായിരിക്കും ഇത് വരിക നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഏറ്റവും എന്നാൽ മെച്ചമായ രീതിയിൽ ചെയ്ത് ഒരു എട്ട് മുതൽ പതിനൊന്ന് ശതമാനം വരെയാണ് സാറെ പോകുന്നത്

ആ ഫ്ലാറ്റും ഉണ്ട് ഇല്ല ഇപ്പം കൂടുതൽ ഡിവിനൈസിംഗാണ് സാറെ ഫ്ലാറ്റിൽ കിട്ടില്ല ഡിമിനിഷിങ്ങ് ആയിരുന്നു എയ്റ്റി പെർസെൻറ്റ് എയ്റ്റി നൈൻറ്റി വരെ ചെയ്യുന്നുണ്ട് സാറെ ത്രീ ഇയറാണ് മാക്സിമം നമുക്ക് കിട്ടുന്നത് ഒരു ലക്ഷം രൂപ എത്ര മാളത്ത് നാളത്തേക്കാണ് സാറേ മുപ്പത് മാസം ഞാൻ അത് കറക്ട് ആ ബാങ്കിൻ്റെ ഏജൻറ്റിനെ കൊണ്ട് സാറിനെ വിളിപ്പിച്ചാൽ മതിയാകുമോ ഓക്കെ വേറെ വണ്ടി സംബന്ധമായ എന്തെങ്കിലും സാറിന് അറിയാനുണ്ടോ ഞാൻ സാറിന് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടെങ്കിൽ ഞാൻ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയ്ൽസ് ഇട്ടു തരാം നമുക്ക് സ്റ്റാൻഡേർഡ് അല്ലേ നോക്കുന്നത് സ്റ്റാൻഡേഡിൻ്റെ കൂടുതൽ ഡീറ്റെയ്ൽസും ബ്രോഷറും ഇട്ടു തരാം ഓക്കെ താങ്ക്യൂ സാർ താങ്ക്യൂ ഫോർ കോളിംഗ്